ഹലോ ആരാണ് എന്താണ് ആവശ്യം അതെ ഏത് കോഴ്സിന് പഠിക്കുന്ന കുട്ടിയാണ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലാണോ ഇപ്പം എന്തിനാണ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്താണ് കാരണം ആ അല്ലാതെ ഈ കോളേജീന്ന് വേറെ നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കുട്ടിക്ക് ആ പ്രശ്നങ്ങൾ കാരണം അല്ലല്ലോ

അച്ഛൻ്റെ ട്രാൻസ്ഫറ് കാരണമാണല്ലേ ആ അച്ഛനേത് ഡിപ്പാർട്ട്മെൻറ്റാ ആ അച്ഛനേത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു ആ അവിടെ അവിടെ അഡ്മിഷനൊക്കെ പറഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ടോ വീട്ടിലാണോ

അവിടെ ഇവിടെ ഹോസ്റ്റലൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇവിടെ അങ്ങ് താമസിച്ചാൽ പോരായിരുന്നോ ഹോസ്റ്റല് താമസിക്കാമല്ലോ ഓക്കേ ഒരു പ്രോബ്ലവും ഇല്ല ആ എത്ര ദിവസത്തിനകം ടി സി കൊടുക്കണമെന്നാണ് ഇവിടെ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ആ കുട്ടീടെ ഡീറ്റെയിൽസ് തന്ന് കഴിഞ്ഞാൽ ആ ടി സിയായി കഴിയുമ്പോൾ പാരൻറ്റ്സിനെ വിളിച്ചറിയിക്കാം ഏഹ് ആ ടി സി വാങ്ങിച്ച് തരും ടി സി ടി സി കിട്ടാനായിട്ട് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റ് ടീച്ചേഴ്സും ആയിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം ഓഫീസിൽ പറഞ്ഞ് ടി സി എഴുതിപ്പിക്കാം ആ ഒരു മൂന്ന് ദിവസം എടുക്കും ആ ഒന്ന് ആ ഒന്ന് ഓഫീസിൽ വിളിച്ച് ചോദിച്ചിട്ട് വരൂ അപ്ഡേഷൻ അപ്പം അറിയാൻ കഴിയും വരുന്ന ആ വരുന്ന മോൻ കോളേജിലോട്ട് വരുന്നതിന് മുമ്പ് ആ രക്ഷകർത്താക്കൾ വരണം ഏഹ് ആ അപ്ഡേഷൻ അറിഞ്ഞിട്ട് വന്നാൽ മതി കേട്ടോ വെറുതെ വന്നിട്ട് പോകണ്ട ഓഫീസിലെന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം കൂടെ വൈകുവായിരിക്കും ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വരൂ കേട്ടോ ടി സി ശരിയാക്കാനുള്ള ഒരുക്കങ്ങൾ നടത്താം ഓക്കേ

നിങ്ങൾ